മലയാളഭാഷ പറയുന്നതുപോലെ തന്നെ എഴുതുന്നൊരു ഭാഷയാണ് മലയാളഭാഷ ഒരു അച്ചടിഭാഷയായിട്ട് നമുക്കുപയോഗിക്കാം ഇതിൽ നമ്മൾ എങ്ങനെ പറയുന്നോ അതേ രീതിയിൽ തന്നെയാണ് എഴുതുന്നത് പക്ഷെ ഇംഗ്ലീഷ് വേറൊരു ഭാഷയിൽ നമ്മൾ പറയുന്നതും എഴുതുന്ന അക്ഷരങ്ങളും തമ്മിൽ വ്യത്യാസം വരും പക്ഷെ മലയാളഭാഷയിൽ അതൊരിക്കലും വരത്തില്ല മലയാളഭാഷ ലോകത്തിലെ തന്നെ പറയാൻ പാടുള്ള ഭാഷകളില് ഒന്നായാണ് എപ്പോഴും കൂട്ടുന്നത് ഇതിലെ ചില്ലക്ഷരങ്ങൾ വ്യഞ്ചനാക്ഷരങ്ങൾ എന്നിവ കാരണമാണ് ഇതിനെ കുറച്ചുകൂടെ പ്രയാസമായി എല്ലാവരും കരുതുന്നത്